ഇപ്പോൾ ഞാന് ശേഖരിച്ച സ്റ്റാമ്പുകള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോൾ ഈയടുത്താണ് സ്റ്റാമ്പ് ശേഖരണവും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയത് കാരണം എന്താണെന്നു വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്റ്റാമ്പു ശേഖരണവും കാര്യങ്ങളും ഒക്കെ ചെയ്യാന് വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റാമ്പ് കിട്ടാത്ത അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂടുതലായിട്ടും പുറമേ നിന്നു വാങ്ങിയിട്ടാണ് സ്റ്റാമ്പും കാര്യങ്ങളും ഒക്കെ ശേഖരിച്ചുക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്കിവിടെ തന്നൊരു മൂര്ത്തിയെന്ന് പറഞ്ഞിട്ടൊരു കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെനിന്നാണ് ഞാന് കൂടുതലായിട്ടും പുതിയതരം സ്റ്റാമ്പുകൾ കാര്യങ്ങൾ ഒക്കെ ഞാന് ശേഖരിച്ചു തുടങ്ങിയത് നമ്മളിപ്പോൾ ആ അതായിത് ഒരു ആധാരത്തില് വെക്കുന്ന സ്റ്റാമ്പു മുതൽ നമുക്ക് സ്കൂളില് നിന്നു കിട്ടുന്ന സ്റ്റാമ്പു വരെ എൻ്റെ കയ്യിലുണ്ടാവും ഇപ്പോൾ അഥവാ എനിക്ക് സ്കൂളിൽനിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ആരെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന വിദ്യാര്ത്ഥികളുടെ അടുത്തുനിന്ന് ഞാൻ ചിലപ്പോൾ അത് പൈസ കൊടുത്തിട്ട് വരെ വാങ്ങാറുണ്ട് ഇപ്പോൾ സ്റ്റാമ്പുകള് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്റ്റാമ്പുകളോട് ഭയങ്കര ക്രൈസാണ് അപ്പോൾ അതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മൂല്യം നല്കുന്ന ഒന്നാണ് കാരണം പഠനത്തിലുപരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കത് എൻ്റ ഒരു കൂടപ്പിറപ്പിനെപ്പോലെയാണു ഞാന് കാണുന്നത് കാരണം എന്താന്നു വെച്ചുകഴിഞ്ഞാൽ ഞാന് ഓരോ സ്റ്റാമ്പൊട്ടിക്കുന്നതും എൻ്റ ഒരു ആ ബുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത്ര ഏറെ വിലപ്പെട്ട ഒന്നാണ് അപ്പോൾ അത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് കാണുന്നത് പിന്നെ പലര പല രീതിയിലുള്ള നാണയങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാന് വേറൊരു ബുക്കിലൊട്ടിച്ചു വെക്കാറുണ്ട് അത് അണ ആ പൈസ അങ്ങനത്തെ പല രീതിയിലുള്ള നാണയങ്ങളാണ് അതൊക്കെ എനിക്ക് ഭയങ്കര മൂല്യമാണ് നൽകുന്നത്